ആ അതെ ആ എത്ര ദിവസമായി തുടങ്ങിയിട്ട്

ചുമയുണ്ടോ വേറെ എന്തൊക്കെയാണ് ചുമ ജലദോഷം അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കെ എന്നാലും ഞാന് മരുന്ന് എഴുതുന്നുണ്ട് മൂന്നുദിവസം ഈ മരുന്ന് കഴിക്ക് കേട്ടോ പിന്നെ ആവി നന്നായി പിടിക്കണം രണ്ട് നേരം ആവി പിടി തുളസീൻ്റെ ഇല ഇടുക പിന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊരു മരുന്ന് വാങ്ങാൻ കിട്ടും ആ മരുന്ന് ഒഴിച്ചിട്ട് പിടിച്ചാലും മതി പിന്നെ തുളസീൻ്റെ ഇല മാത്രമായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തുളസീൻ്റെ അങ്ങനെ ഇല ഇട്ടിട്ട് രണ്ട് നേരം ആവിപിടിക്കുക അത് ഈ വാ ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം അതുകൊണ്ട് എന്തായാലും ഞാൻ മരുന്ന് എഴുതുന്നുണ്ട് ആ ആന്റിബയോട്ടിക് രണ്ടുദിവസം കഴിഞ്ഞിട്ട് എഴുതിത്തരുന്നുണ്ട് ഇപ്പോൾ തൽക്കാലം വൊമിറ്റിങ് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു മെഡിസിൻ എഴുതുന്നുണ്ട് അതൊന്നു കഴിച്ചു നോക്കൂ എന്നിട്ട് കുറവില്ലെങ്കിൽ മൂന്നുദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വന്നാൽ മതി

ചൂടുള്ള ആഹാരം മാത്രം കഴിക്കുക ഈ കഞ്ഞി പപ്പടം അങ്ങനെ ലൈറ്റ് ആയ ഫുഡ് മാത്രം കഴിക്കുക പിന്നെ നന്നായി ചൂടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടുദിവസത്തേക്ക് തല നനക്കേണ്ട കേട്ടോ ആ ആ വേണ്ട അപ്പോൾ എന്താണ് അറിയുമോ കൂടുതൽ ചുമയൊക്കെ വരുവാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തലയൊന്നും നനക്കേണ്ട ഈ മരുന്ന് എന്തായാലും കൃത്യമായിട്ട് കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കണം കുറവില്ലെങ്കിൽ നമുക്ക് മൂന്നുദിവസം കഴിഞ്ഞിട്ട് ഒന്നു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഇതിൽ എഴുതുന്നുണ്ട് ആ തല

ആ അത് ക കഫക്കെട്ട് തലയിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ എഴുതുന്നുണ്ട് അപ്പോൾ അത് രാത്രി കഴിക്കാനുള്ള ഗുളികയാണ് കേട്ടോ അത് രാത്രി മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ പകൽ കഴിച്ചാൽ ഭയങ്കര ക്ഷീണമായിരിക്കും വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ അതുകൊണ്ട് രാത്രി കഴിച്ചാൽ മതി ഈ മരുന്ന് കേട്ടോ പിന്നെ വേറെ എന്താണ് പറഞ്ഞത്

ആ ആയിക്കോട്ടെ മൂക്കൊലിപ്പിനുള്ള മറ്റേ നേസൽ ഡ്രോപ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ അത് മൂന്ന് തുള്ളി വീതം രണ്ടുനേരം മൂക്കിൽ ഇറ്റിച്ച് കൊടുക്കുക ആ ഓക്കെ വെൽക്കം